ഹലോ ഹലോ ആ അതെ അതെ സർവീസ് ചെയ്യാൻ അത് എങ്ങനെയാണ് അത് ഫിൽട്ടർ കംപ്ലൈൻറ് ആയതാണോ അതോ ഫിൽട്ടർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണോ ആ ഓക്കെ എങ്ങനെയാണ് ഉള്ളത് എന്ന് സൗണ്ട് അങ്ങനെ എന്തെങ്കിലും ആ എന്താ കൂളിങ്ങിൽ എന്തെങ്കിലും പ്രശ്നം തോന്നിയിരുന്നോ ആ ഓക്കെ അത് ഫിൽ

ആ എത്ര ദിവസം പ്രശ്നം ആ ഓക്കെ അത് സൗണ്ട് ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ അത് ഫിൽറ്ററിൻ്റെ കംപ്ലൈയിൻറ് ആയിരിക്കും അത് നമ്മൾ അവിടെ വന്നിട്ട് ശരിയാക്കി തരാം അതിന് എങ്ങനെ അത് ഇപ്പോൾ എന്താ കമ്പനിയിൽ നിൻ വാങ്ങിയിട്ട് എത്ര ആയി ടൈം ആ അതിൻ്റെ വാറണ്ടി എത്ര ആണെന്ന് സാറിന് ഓർമ്മയുണ്ടോ ആ ഓക്കെ ഓക്കെ വാറണ്ടി സിക്സ് മന്ത്സ് ആണല്ലേ ഇപ്പോൾ വൺ വൺ ആൻഡ് ഹാഫ് ഇയറായി ഇപ്പോളാണ് പ്രശ്നം പ്രോബ്ലം സ്റ്റാർ ചെയ്തത് അല്ലേ

ആ ഇല്ല ഇല്ല നമ്മൾ ഇന്ന് ഈവനിംഗ് തന്നെ പരമാവധി നമ്മൾ എത്താൻ ശ്രമിക്കും

റീപ്ലേസ് ചെയ്യാനോ റീപ്ലേസ് ചെയ്യാൻ ഇത് ഇപ്പോൾ വാറണ്ടി കാലഘട്ടം കഴിയുന്നത് കൊണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ അത് കംപ്ലൈൻറ് നമ്മൾ മാറ്റി തരും അതായത് കംപ്ലൈയിൻറ് എന്താണോ അത് നമ്മൾ സർവീസ് ചെയ്ത് ശരിയാക്കി തരും ആ ഓക്കെ കാരണം

ആ അതെ നമ്മൾ നമ്മൾ ഇവിടെ കൊണ്ട് വരും എന്നിട്ട് അതിൽ എന്തേലും ഒക്കെ അതിലുള്ള എന്തേലും സാധനങ്ങൾ റീപ്ലേസ് ചെയ്യാനാണെങ്കിൽ അത് ചെയ്ത് നമ്മൾ റിട്ടേൺ അവിടെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്ത് തരും ആ അല്ല ആ അല്ലല്ല ആ അത് നമ്മൾ കൺസേർണിൽ ചെയ്യുന്നുണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഇത് ഓക്കെ ആക്കി തരും സാറ് വീട് വീട് എവിടെയാണെന്നാണ് പറഞ്ഞത് ആ ഓക്കെ ഓക്കെ

ആ ഓക്കെ ശരി